ഇടുക്കി ജില്ലയിൽ കുറേ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളു ഒക്കെ ഒണ്ട് മെയിനായിട്ട് നമ്മൾ ഓണം ക്രിസ്മസ് ഓണം ക്രിസ്മസ്സ് വിഷു ദീപാവലി അങ്ങനെയുള്ള കുറേ കുറേ കാര്യങ്ങൾ നമ്മൾ ആചരിക്കാറുണ്ട് പിന്നെ ഈസ്റ്ററ് പള്ളിയിലൊക്കെ ആണെങ്കിലും ഈസ്റ്ററ് എന്താണ് പറയുക കൂടെ നമ്മൾ ഒരുമിച്ചു നല്ല പള്ളിയിലത്തെ കാര്യങ്ങളാണങ്കിൽ നമ്മൾ എല്ലാം ഒരുമിച്ചു നല്ല യൂണിറ്റിയിലും ഐക്യത്തിലും ഒക്കെയാണ് ചെയ്യുന്നത് ഇതെല്ലാം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മളുടെ നമ്മളുടെ കമ്മ്യൂണിറ്റി നമ്മളുടെ കമ്മ്യൂണിറ്റിയിൽ വളരെ അധികം എന്താണ് പറയുക നല്ല ഒരു സ്നേഹബന്ധം ഉണ്ടാക്കാനൊക്കെ ആയിട്ട് സഹായിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് അതായത് നമ്മുടെ യൂണിറ്റി ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ആചാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ എന്താണ് ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണല്ലോ കേരളത്തിൻ്റെ ഒത്തൊരുമയിൽ കാണിക്കുന്ന ഒന്നാണ് ഓണം അതേപോലെ തന്നെ ഈസ്റ്റർ നമ്മൾ എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ക്രിസ്ത്യാനികളും പള്ളിയിൽ ഒരുമിച്ചു ചേർന്നു ആചരിക്കുന്നു അതേപോലെ തന്നെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പള്ളിയിൽ ഒരുമിച്ചു ചേർന്ന് ആചരിക്കുന്നുമുണ്ട് ഇത് മാത്രമല്ല പിന്നെ ഇടുക്കിയിൽ സ്പെഷ്യൽ ആയിട്ട് അങ്ങനെയുള്ള ഒരു ആചാരമൊന്നുമില്ല എല്ലായിടത്തും ഉള്ള പോലെയൊക്കെ തന്നെ ഉള്ള കാര്യങ്ങളാണ് ഉള്ളത് പിന്നെ പിന്നെ എന്താണ് ക്രിസ്മസൊക്കെ ആണെങ്കിലും ക്രിസ്മസൊക്കെ ആകുമ്പോൾ നമ്മൾ പള്ളിയിൽ എല്ലാവരും ഒരുമിച്ചു വന്നു നമ്മൾ കൂട്ടായ്മ തരത്തിൽ എല്ലാവരും ചേർന്ന് കരോളിന് പോവുകയും അതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്നേഹബന്ധത്തെ ഇമ്പ്രൂവ് ആകാൻ സഹായിക്കുന്നുണ്ട് നമ്മളെ എല്ലാവരുടെയും നമ്മളുടെ എല്ലാവരുടെയും യൂണിറ്റിയെ അത് ഇമ്പ്രൂവ് ആക്കുന്നുണ്ട് പിന്നെ

ഇനി ഇപ്പം നമുക്ക് ഈസ്റ്ററൊക്കെ വരാൻ പോവുകയാണ് അതൊക്കെ നമ്മളുടെ എന്താണ പറയുക ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ ജില്ലയുടെ ജില്ലയുടെ ഇത് ഇപ്പം എല്ലാ ജില്ലകളിലും ഉള്ളതാണ് ഇതെല്ലാം നമ്മളുടെ എല്ലാവരുടെയും ഐക്യത്തിനും എല്ലാത്തിനും വളരെ അധികം ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതുവഴി എല്ലാം നമ്മളുടെ സ്നേഹവും ഐക്യവും എല്ലാം ഒരുപാട് ഇമ്പ്രൂവ് ആവുകയും നല്ല ഒരു യൂണിറ്റി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് പള്ളിയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കാര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ചു കൂടുന്ന ഒരുപാട് സിറ്റുവേഷൻസൊക്കെ ഉണ്ട് അപ്പം അത് നമ്മളെ എല്ലാവരുടെയും എന്താണ് പറയുക അതിനൊക്കെ ഒരു ഇത് യൂണിറ്റികൊക്കെ വളരെ അധികം ഹെൽപ്പ് ആണ് ഹെൽപ്പ് ആണ് പിന്നെ അതേപോലെ തന്നെ ഓണമൊക്കെ ആണെങ്കിലും നമ്മൾ ഇപ്പോൾ എവിടെ എല്ലാവരും കേരളത്തിൽ എല്ലാവരും ആഘോഷിക്കുന്ന ഒന്നാണ് അതൊക്കെ അതൊക്കെ അതേപോലെ തന്നെ നമ്മളെ ജില്ലയിലും ആഘോഷിക്കാറുണ്ട് എല്ലാം നല്ല വളരെ മനോഹരായിട്ടൊക്കെ തന്നെയാണ് ആഘോഷിക്കുന്നത്

ഇതെല്ലാം ഇതെല്ലാം വളരെ നല്ല ഒരു നല്ല കാര്യങ്ങൾക്കാണ് എല്ലാം വളരെ നല്ലതാണ്